കൃഷി എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അതിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് അത് നനയ്ക്കുകയെന്നുള്ളത് നനയ്ക്കുന്നതിൽ ആദ്യകാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്തായിരുന്ന പ്പോഴെല്ലാം നമ്മുടെ പിതാക്കന്മാർ ചെയ്തിരുന്ന രീതിയെന്നത് ഏറെ വ്യത്യസ്തമാണ് നമ്മൾ പലപ്പോഴും കാണുന്നതുപോലെ തന്നെ അവർ വെള്ളം പലപ്പോഴും കോരിയെടുത്ത് അടുത്തുള്ള നദികളിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് അത് കുട്ടയിലാക്കി കൊണ്ടുവന്ന് അത് നനയ്ക്കുകയെന്നുള്ളൊരു രീതിയായിരുന്നു പണ്ടെല്ലാം ഉണ്ടായിരുന്നത് അതിന് ഏറെ വലിയ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം തന്നെ ആവശ്യമാണ് അത് ഏറെ ക്ഷീണിപ്പിക്കുന്നതും അതു പരമായി തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും ഏറെ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു എന്നാൽ അതുകഴിഞ്ഞ് പിന്നീട് വന്ന മാർഗ്ഗങ്ങൾ പിന്നീട് നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നുവെന്നാൽ പലപ്പോഴും ഓസ് പോലെയുള്ള അല്ലെങ്കിൽ പൈപ്പുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അത് എല്ലാ ആ ഹോസ് അല്ലെങ്കിൽ പൈപ്പ് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കൃഷിയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിങ്ങനെ എത്തിച്ചു കൊടുക്കുകയെന്നുള്ളത് മുഖേനയായി എല്ലാ കൃഷികളും കൃഷിയിടങ്ങളിലെ എല്ലാ ഭാഗങ്ങളും നനയ്ക്കുകയെന്നുള്ളതായിരുന്നു നമ്മൾ പിന്നീട് ചെയ്തിരുന്നത് എന്നാൽ ഇതിലും തന്നെ പലപ്പോഴും പല ഭാഗങ്ങളിലേക്കും വേണ്ട പൈപ്പ് സൗകര്യങ്ങളെല്ലാം ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ പൈപ്പ് സ്ഥാപിക്കുകയും അതിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയി ഒഴിക്കുന്നതും പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ കാണുന്നതുമായിരുന്നു എന്നാൽ ഇന്ന് ഏറെ അതിൻ്റെ ടെക്നോളജികളും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഏറെ വികസിപ്പിച്ച അല്ലെങ്കിൽ മറ്റു പുതിയ രീതികൾ പല കൃഷിക്കാരും കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്നത്തെ കാലങ്ങളിലുള്ളത് നമ്മളെല്ലാം ചെയ്യുന്നത് ഇന്നത്തെ കൃഷിയിടങ്ങളിലെല്ലാം ഇതിനുള്ള മോട്ടറുകൾ അല്ലെങ്കിൽ ഇതിനുള്ള പല മെഷീനുകളും ഘടിപ്പിക്കുന്നത് മൂലം ആ മോട്ടർ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു പണിയുമില്ലാത്ത രീതിയിൽ കൃഷിയിടങ്ങളിലൂടെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളമെത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മൾ ഇന്ന് വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയെന്നത് ഒരു പ്രത്യേകതരം മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മെഷീനിൽ ഘടിപ്പിച്ച പൈപ്പുകൾ നമ്മുടെ കൃഷയിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം അത് അതിൻ്റെ മോട്ടർ പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ അതിലേക്ക് വെള്ളം വന്ന് ആ വെള്ളം എല്ലാ കൃഷിയിടങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വൃത്ത രീതിയിൽ ഇങ്ങനെ എല്ലാ കൃഷിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ വെള്ളം എത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രക്രിയകളിൽ നിന്ന് തന്നെ ഈ കൃഷിയിടങ്ങളിലെ നനയ്ക്കുന്ന രീതി ഏറെ സുഖപ്പെട്ടതായി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാണ്